നമ്മുടെ മലയാളഭാഷയെ പറ്റി പറയുകയാണെങ്കില് നമ്മുടെ മലയാളഭാഷ ഉരുതിരിഞ്ഞ് വന്നിരിക്കുന്നത് തമിഴ് ഭാഷയിൽ നിന്നും അതുപോലെത്തന്നെ സംസ്കൃതം കൂട്ടിക്കലർന്നുമായിട്ടാണ് നമ്മുടെ മലയാളഭാഷ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് അതുപോലെത്തന്നെ വാമൊഴിയിലൂടെയാണ് നമ്മുടെ ഭാഷ കൈമാറി കൈമാറി നമുക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെത്തന്നെ വട്ടെഴുത്ത് അതായത് നമ്മൾ മലയാളം എഴുതുന്നത് വട്ടെഴുത്തെന്നാണ് നമ്മുടെ മലയാളം എഴുതുന്നതിനെ കുറിച്ച് പറയുന്നത് അതുപോലെതന്നെ വ്യാകരണവും ഉച്ചാരണവും കുറിച്ച് മലയാളത്തിൽ നമ്മുടെ മലയാളഭാഷയുടെ വ്യാകരണം ഉച്ചാരണവും ചോദിക്കുവാണെങ്കില് രണ്ടും നമ്മുടെ മലയാള ഭാഷയിലെ ഏറ്റവും പ്രധാനമായ ഘടകങ്ങൾ തന്നെയാണ് വ്യാകരണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമറിനെയാണ് വ്യാകരണം നമ്മൾ സംസാരിക്കുന്ന വരികളിൽ ഒരാളോട് ആശയവിമയം നടത്തുമ്പോൾ അയാളോട് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഒരു ആശയം എത്തുമ്പോൾ അയാൾക്കത് കറക്റ്റായിട്ട് രണ്ടാമത്തെ വ്യക്തിക്ക് അത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി വ്യാകരണം പ്രധാനം തന്നെയാണ് അതു നമ്മൾ എഴുത് എങ്ങനെയാണോ മലയാളഭാഷ എഴുതുന്നത് അതുപോലെതന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് വ്യാകരണം നമുക്ക് എഴുതുന്നതും സംസാരിക്കുന്നതിനുമുള്ള വ്യാകരണം ഒന്നുതന്നെയാണ് അതുപോലെതന്നെ ഉച്ചാരണം ശ്രദ്ധിക്കും ഉച്ചാരണത്തിനെ കുറിച്ച് പറയുമ്പോൾ മലയാളഭാഷയുടെ ഉച്ചാരണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് കാരണം ഉച്ചാരണം വാക്കിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോള് നമ്മള് ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ ഉച്ചാരണശുദ്ധിയും ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട അവശ്യമുണ്ട് അതുപോലെതന്നെ വ്യാകരണവും ഉച്ചാരണവും നമുക്ക് നമ്മുടെ മലയാള ഭാഷയിൽ നിന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് വ്യാകരണം നമ്മുടെ വരികളെ അതായത് സംസാരിക്കുന്ന ആശയത്തെ ആസ്പദമാക്കിയും അതുപോലെതന്നെ ഉച്ചാരണം നമ്മൾ പറയുന്ന വാക്കുകളെ മലയാളത്തിലെ ഓരോ വാക്കുകളെ ആസ്പദമാക്കിയിരിക്കുന്നു അതുപോലെതന്നെ നമ്മുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട വേറൊരു നമ്മുടെ മലയാളഭാഷയുടെ ഒരു ഘടകമാണ് ശൈലി എന്ന് പറയുന്നത് ശൈലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മള് നമുക്ക് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ പതിനാലോളം ജില്ലകളുണ്ട് ഓരോ ജില്ലകളിലും ഓരോ ശൈലിയിലാണ് നമ്മൾ മലയാളികൾ സംസാരിക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരത്തും തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ പതിനാല് വിവിധതരം ശൈലികളിലാണ് ആൾക്കാര് സംസാരിക്കുന്നത് അതുകൊണ്ടുതന്നെ നമ്മൾ എപ്രകാരമാണ് സംസാരിക്കുന്നത് ആ ശൈലിയും നമ്മുടെ വ്യാകരണവും ഉച്ചാരണ രീതിയും ശൈലിയും വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് വേണമെങ്കില് പറയാം ഉച്ചാരണവും ശൈലിയും വ്യാകരണവും അതുകൊണ്ടുതന്നെ നമ്മുടെ മലയാളഭാഷയിൽ ഏറ്റവും പ്രധാനമായ ഘടകങ്ങൾ തന്നെയാണ്